കർഷക ആത്മഹത്യകൾ നമ്മടെ രാജ്യത്തോ സംസ്ഥാനത്തോ ജില്ലയിലൊക്കെ ഇത് ഭയങ്കരമായി കൂടിക്കൂടി വരുന്നു ഒന്നാമത്തെ കാരണം കാർഷിക വിളകൾക്ക് അതിൻ്റേതായ യഥാർത്ഥ വിലകൾ കിട്ടുന്നില്ല പിന്നെ മഴക്കെടുതി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് കാർഷിക വിളകൾ നശിച്ചു പോകുന്നു അതിനുള്ള അതിനെതിരെ നഷ്ടപരിഹാരം കിട്ടാണ്ട് വരുന്നു അങ്ങനെ കർഷകർക്കൊരു പ്രോത്സാഹനം ഒരു പിന്തുണ ഇല്ലാണ്ട് വരുമ്പം അങ്ങനെ മരിക്കുന്നു ചിലർ പിന്നെ കാർഷിക വായ്പകൾ കിട്ടാണ്ട് വരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഒരുപാട് കർഷകർ മരിക്കുന്നു അപ്പോൾ പിന്നേ ഇതിന് സർക്കാർ എടുക്കാൻ പറ്റുന്ന ഒരുപാട് മുൻകരുതലുകൾ ഉണ്ട് കാരണം കാർഷിക വിളകൾക്ക് പിന്നെ വില കൂട്ടുക കർഷകരെ പിന്തുണയ്ക്കുക അവർക്ക് സപ്പോർട്ട് നൽകുക കാർഷിക ഉത്പന്നങ്ങൾ സർക്കാർ കുറെ ഏറ്റെടുക്കുക മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പനങ്ങൾ വരവ് കുറയ്ക്കുക കർഷകർക്ക് വേണ്ടത്ര ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കുക ഇതൊക്കെയാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്